ഓക്കെ ഇവൻറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്ന സമരല്ലെ

ആണോ ഓക്കെ ആ ഈ വരുന്നത് സൺഡെ എൻറ്റെയൊരു സിസ്റ്റർന്റെ ബേത്ഡെയാണ് അപ്പോൾ ആ ഒരു അൻപത് പേർക്കുള്ളൊരു ഫുഡ്ഡ് മതി ജസ്റ്റ് ഫാ ഫാമിലി ഫ്രെണ്ട്സ്സ് അങ്ങനക്കെ അത്രയക്കെ വിളിക്കണുള്ളു അപ്പം മിനിമം ഒരു അൻപത് പേർക്കുള്ള ഫുഡ്ഡ വേണ്ടെ

ആ അങ്ങനെയാണല്ലേ അൻപത് പേർക്കുള്ള ഫുഡ്ഡാ വേണ്ടെ അപ്പോൾ അതിന് എന്തൊക്കെ ഐറ്റംസ്സ് വേണം പിന്നെ എന്തൊക്കെ സ്പെഷ്യല് ആ ആ

ഓക്കെ ആ ആ ഓക്കെ ആ ഓക്കെ

ഓക്കെ

ആ ആണെന്നെച്ചാൽ ഇതിപ്പം എന്തൊക്കെ ഏതൊക്കെ വേണ്ടതെന്നുള്ള ലിസ്റ്റപ്പം നിങ്ങൾ നേരത്തെ തരില്ലേ വാങ്ങാനായിട്ട്

ആ ക്കെ ആ ഓക്കെ ആ അപ്പം ഇതിപ്പം മൊത്തത്തിൽ പേമന്റക്കെ ഏകദേശം എത്രയക്കെയാവും എന്ന് അറിയില്ലേ അപ്പോൾ

എല്ലെച്ച വേസ്റ്റായി പോകും ഇത് ഫുഡ്ഡ് ആ ഒരു രീതിയിലായിരിക്കണം വേണ്ടത് ആ ആ

അ ആ

ആ ആ ഓക്കെ ഓക്കെ ഓക്കെ ആ ഓക്കെ ആ

ആം ഓക്കെ

ഓക്കെ

ആ പൈനാപ്പിളായിരിക്കും കൂട്തൽ ബെറ്റർ

ഓക്കെ ഓക്കെ

ഓക്കെ

ഇല്ല ഇപ്പം എല്ലാം ക്ലീയറായി ഇപ്പമെല്ലാം കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എയ് അങ്ങനൊന്നുമില്ല ഇപ്പം ആൾമോസ്റ്റിപ്പം വേണ്ട കറികളുടെ ഡീറ്റെയ്ൽസ്സുവെല്ലാം കാര്യങ്ങളും പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെത്തന്നെ മതി അത്ര വലിയൊരു ഫങ്ക്ഷനല്ല ഒരു സിമ്പിൾ ഫങ്ങ്ഷനാണ് അപ്പം ആ ഫങ്ങ്ഷനുള്ള എല്ലാം ആയിട്ടുണ്ട് അ അത് ശരിയാണ് ആ ഇപ്പം നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു നല്ല ഫങ്ങ്ഷന് വേണ്ടിട്ടുള്ള എല്ലാ ഫുഡ്ഡ് ഫുഡ് ഐറ്റംസ്സും ആയിട്ടുണ്ട് ശരി ആം ഓക്കെ ഓക്കെ താങ്ക് യൂ ആ ഓക്കെയാണ് ഓക്കെയാണ്

ഓക്കെ ഓക്കെ ഓക്കെ മാങ്ങാച്ചാറ്

അപ്പം തേങ്ങാ ഉള്ള ഇപ്പം ഇതിലെല്ലാത്തിലും ഹൈലൈറ്റായിട്ട് വേണ്ടത്

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ടാങ്ക് യൂ